വിദ്യാഭ്യാസ ലോൺ കൊടുക്കേണ്ടത് ഒരു കടമയാണ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയേണ്ടത് കാരണം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയേണ്ടത് ഒരു അത്യാവശ്യമായ കാര്യമാണ് കുട്ടികൾക്ക് നൽകേണ്ട കാര്യമാണ് കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നത് ഉണ്ടോ എന്നുള്ള ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ലോൺ എടുത്ത ആരെയെങ്കിലും എനിക്ക് അറിയില്ല എന്നുള്ള ഒരു കാര്യമാണ് കാരണം ലോൺ എടു എടുക്കുന്നതിന് പകരം ഇനി കേരളത്തിലായത് കൊണ്ട് കേരളത്തിൽ കുറേ ഗവൺമെൻറ് സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ട് അതിന് അനുസരിച്ചുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ